നമ്മുടെ സംസ്ഥാനത്ത് കുറേ ഭാഷകളുണ്ട് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ പറയുന്ന ഒരുപാട് ഭാഷകളുണ്ട് അതിൽ നമുക്ക് പറയാൻ എന്താ എളുപ്പമുള്ള ഭാഷ അതാണ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് മലയാള ഭാഷയാണ് സംസാരിക്കാൻ ഏറ്റവും സുഖം നമുക്ക് വായിൽ തോന്നിയതൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം എന്താ പറയുക ഈ അക്ഷരങ്ങളോ പിന്നെ ക്വസ്റ്റിൻസുകളോ എന്താണെങ്കിലും നമുക്ക് മലയാളത്തിലാണെങ്കിലും സുഖമാണ് സംസാരിക്കാനൊക്കെ എക്സാം ഹോളിലാണെങ്കിൽ തന്നെ മലയാളത്തിലായാൽ തന്നെ സുഖമാണ് ഇംഗ്ലീഷാകുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം നോക്കീട്ട് വേണം നമുക്ക് ആൻസറ് ചെയ്യാനും വായിക്കാനും എല്ലാത്തിനും ഇപ്പോഴെന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാനത്ത് ഉള്ള ആൾക്കാർ വന്നിട്ട് വരെ മലയാളമാണ് ഇവിടുന്ന് പഠിച്ചിട്ട് പോണുണ്ട് എഴുതാനും വായിക്കാനുമൊക്കെ അവര് പഠിക്കണുണ്ട് എന്നാൽ നമ്മൾ നേരെ തിരിച്ചാണ് അവരുടെ നാട്ടിൽ പോയാൽ നമുക്കങ്ങനെ പഠിക്കാനോ എഴുതാനൊന്നും പറ്റണി പറ്റുന്നില്ല എന്താ എന്താണെന്ന് വച്ചാൽ എനിക്ക് എൻ്റെ മലയാള ഭാഷയാണ് പ്രധാനമെന്നാണ് എനിക്ക് തോന്നുന്നത്